ഇന്ത്യയിലെ തന്നെ ഗതാഗത സംവിധാനങ്ങളെന്തൊക്കെയാണെന്നു വെച്ചു കഴിഞ്ഞാൽ ബസ് സ്കൂട്ടർ കാർ ന്ന ജീപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ മനുഷ്യരൊക്കെ അതുപയോഗിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ സ്കൂട്ടറുള്ള വീടുകളൊക്കെയാണെങ്കിൽ സ്കൂട്ടറുപയോഗിക്കും അല്ലാത്തവർ നടന്ന് അല്ലെങ്കിൽ ന്ന ഓട്ടോക്കു പോകാന് വേണ്ടി ഓട്ടോക്ക് അല്ലെങ്കിൽ ബസ്സെന്നു പോകാന് വേണ്ടിയാണവർ ശ്രമിക്കുന്നത് പിന്നെ ന്ന യാത്ര ചെയ്യുമ്പം ഇപ്പം ഒരു നമുക്കറിയാമല്ലോ അതിൻ്റെ ട്രാഫിക്ക് നമ്മൾ മെയിനായിട്ടു പാലിക്കണമെന്നു യാത്ര ചെയ്യുമ്പം മെയിനായിട്ട് ഗ്രീന് ലൈറ്റ് യെല്ലോ ലൈറ്റ് റെഡ് ലൈറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ് പിന്നവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളികളെന്നുദ്ദേശിച്ചു കഴിഞ്ഞാൽ വെല്ല് വെല്ലു വിളികളെന്നു വെച്ചു കഴിഞ്ഞാൽ എന്നാ ഇപ്പം ഒരു അത്യാവശ്യ സമയത്ത് ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഒരാള്ക്കു വയ്യ അപ്പം തനിക്കു വണ്ടി ഓടിക്കാനറിയാം പക്ഷേ വണ്ടി ഇല്ലാത്തതു മൂലം അവര്ക്കു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പം അവരേറ്റവും കൂടുതലവിടെ നേരിടുന്നൊരു വെല്ലു വിളിയുണ്ട് കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു നമ്മൾ ഇപ്പം സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്കതെടുത്തു കൊണ്ടു പോകാം ആരൊടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇപ്പൊരു വയ്യാതിരിക്കുന്നൊരാന്റി അല്ലേ ഒരങ്കിളാണേ പെട്ടെന്നൊന്ന് പോകണമെങ്കിലൊരു കാറിനു നമ്മൾ ചോദിക്കണേ നമ്മൾ നമ്മുടെ അയല്വക്കക്കാരോട് ആ തെണ്ടണം ഒന്നു തരാമോ അവർ ചോദിക്കുക എന്താവശ്യത്തിനാണ് നിങ്ങൾ പോകുന്നതെന്നെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടേതാണ് നമുക്ക് യാത്ര ചെയ്യാന് പറ്റത്തുള്ളൂ ആ സമയം കൊണ്ടു നമ്മളവിടുത്തെ ആ ഒരു ഒരു വയ്യായ്ക വന്നാൽ ഒരു മനുഷ്യന്റെ ടൈം പോകുകയാണ് ചെയ്തത് അപ്പം അങ്ങനത്തെ കുറേ കുറേ വെല്ലു വിളികളാണ് നേരിടാൻ അപ്പം സ്വന്തം വീട്ടിൽ വാഹനങ്ങളില്ലാതെ വരുമ്പം അവരെന്തൊക്കെ എത്രമാത്രമാണനുഭവപ്പെടുന്നത് കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള അവരുടെ ബുദ്ധിമുട്ട് ഇപ്പം വീട്ടിലാവശ്യങ്ങൾക്ക് സാ വെള്ളമെടുക്കാനാണെങ്കിലും ഒരത്യാവശ്യ കാര്യങ്ങള്ക്കെവിടെയെങ്കിലും പോകാനാണെങ്കിലും എന്ന ആധാർ കാഡ് ചെയ്യാൻ അങ്ങനത്തെ ഓരോ കാര്യം ചെയ്യാനൊക്കെ ആണേൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന വാഹനമില്ലാത്തവർ ബുദ്ധിമുട്ടി പിന്നെ നമുക്കൊരു വഴി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണാലോചന പോലും നടക്കത്തില്ല ഒരു കരി വിവാഹം ഒരു കല്യാണാലോചന വന്നാൽത്തന്നെ അതു നമുക്കത് പോകാന് ബുദ്ധിമുട്ടായിരിക്കും കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ വഴി വഴി ഏറ്റവും കൂടുതലനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഒന്നാണ് കാരണം എന്നു വെച്ചുകഴിഞ്ഞാൽ വഴി ഒന്നുമില്ലാതെ എങ്ങനെ നാ എന്റെ കുഞ്ഞിഞാങ്ങോട് പറഞ്ഞു വിടും അങ്ങനതായ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഒരു ഗതാഗതത്തിനകത്തു വരുന്ന അനുഭവപ്പെടുന്ന കുറേ കുറേ രീതിക്കും കുറേ വെല്ലു വിളികളും എന്നു പറയുന്നത്